ഹോം ബേക്സല്ലേ അതെ അവിടെ ഏതൊക്കെ കേക്കാണ് അവൈലബിളായിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെയൊക്കെ എമൗണ്ടങ്ങനെയായിരിക്കും

അത് ഹാഫ് കെ ജി ആണെങ്കിൽ

ഓക്കെ ആ വേറെയേതൊക്കെയായിരുന്നു ഉള്ളത് ആ നമ്മുടെ കയ്യിൽ ബ്ലൂ ബ്ലൂബറി വല്ലതും അവൈലബിളാണോ പൈനാപ്പിളോ പൈനാപ്പിളിനെത്രയാകും ഹാഫ് കെ ജി ഓക്കെ മ് ഇത് ഹോം ഡെലിവറി അവൈലബിളാണോ അത് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മൺഡേ കിട്ടുമോ അപ്പോൾ ഹോം ഡെലിവറി വരുമ്പോൾ എക്സ്ട്രാ ചാർജ്ജാകുമോ എക്സ്ട്രാ വരുമ്പോൾ എത്രയാകും നമ്മുടെ ഇവിടെ നിന്നൊരു പതിനഞ്ച് ഇരുപത് കിലോ മീറ്റർ എറൗണ്ടുണ്ട് പെർ കിലോ മീറ്ററോ അതോ ടോട്ടലോ ആ ഓക്കെ നമുക്ക് അതിൻ്റെ ഷേപ്പെങ്ങാനാണ് വരുന്നത് നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ചെയ്തു തരുമോ നമ്മൾ വാഞ്ചോ ഡബിൾ ലെയറില്ലേ ആ അതിൻ്റെ മുകളിലിങ്ങനെ ആ അതിൻ്റെ മുകളിലിങ്ങനൊരു ഈ ഇതൊക്കെയില്ലേ ഈ ബൊമ്മകളുടെ രൂപമൊക്കെ വരുന്ന രീതിയിലുള്ള

എക്സ്ട്രാ എത്രയാകും വാഞ്ചോ വാഞ്ചോ ഈ നമ്പറിൽ വാട്സപ്പുണ്ടോ ആ ഓക്കെ ഓക്കെ പിന്നെ വേറെ ആ ഈ ഹോൾ സെയിൽ റേറ്റിൽ വല്ലതും കിട്ടാൻ വഴിയുണ്ടോ നമ്പർ എം ഒ ഇത് കേക്കിൻ്റെയെണ്ണം കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ബേക്കറിയും കൂടെയുണ്ടേ അപ്പോൾ അപ്പോൾ ആ അവിടെ കൊടുക്കാനും കൂടായിട്ട് നമ്മളവിടുന്നെടുക്കുകയാണേ ഈ എമൗണ്ട് വെല്ലോം ചേഞ്ചാകുമോ അതോ സെയിം എമൗണ്ട് തന്നായിരിക്കുമോ അഡ്രസ്സ് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം എന്തായാലും ആ ഓക്കെ താങ്ക് യൂ